ഇപ്പോൾ എൻ്റെ വീടിനു ചുറ്റും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കാടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ കൂടുതലായിട്ടും നല്ല രീതിയിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള ഒരു കാടും കാര്യങ്ങളും ഒക്കെ വരുന്നതിനു മുന്നേ ചേ ഇപ്പോൾ വീടിൻറെ ചുറ്റും പരിസരവും ഒക്കെ ഇപ്പോൾ നമ്മള് മിറ്റം തന്നെ ചിലപ്പോൾ കാടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് പുറമേ നിന്നു നോക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും ഈ വീട്ടൽ ഒന്നും ആൾതാമസം ഇല്ലേ എന്ന് വരെ ചിലപ്പോൾ നാട്ടുകാരും ആൾക്കാരും ഒക്കെ ചോദിക്കും നമ്മൾ അതിന് ഇടവരുത്താണ്ട് ചെറുത് ചെറിയ ടൈമിൽ തന്നെ നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് മുളച്ചു വരുന്ന കാടൊക്കെ നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് പറിച്ചു കളയുകയോ ഇല്ലെങ്കിൽ തുമ്പ് കൊണ്ട് ചെത്തി കളയുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കില് നമുക്ക് പിന്നത് വലിയ പണിയും കാര്യങ്ങളും ഒന്നും ആയിട്ട് വരില്ല അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വൃത്തിയാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മൾ വേസ്റ്റുംകാര്യങ്ങളൊക്കെ നമ്മള് വേസ്റ്റ് കുഴിയിലും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കില് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇല്ലെങ്കില് ആ വേസ്റ്റിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഗ്യാസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചെയ്യുകയാണെൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് കാരണം എന്തെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മള് വലിച്ചുവാരി എറിഞ്ഞു കഴിഞ്ഞാ ല് അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വരും അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീടും പരിസരവും ഒക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കാൻ വേണ്ടി സാധിക്കും